സാങ്കേതികവിദ്യകൾ ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച ദോഷകരമായ ഒരു കാര്യമാണ് ഇന്ന് കുട്ടികൾ പലരും ഓൺലൈൻ ക്ലാസുകളിലെ ക്ലാസ്സ് ഓണാക്കി വെച്ചിട്ട് ഫോൺ അപ്പുറത്ത് വെച്ച് പോവുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികൾ ക്ലാസ്സ് ശ്രദ്ധിക്കുന്നില്ല വെറുതെ ഈ ഓൺലൈൻ ക്ലാസിൽ അറ്റൻഡൻസ് ചെയ്യുക എന്നതിൽ ഉപരി ഇതിൽ എന്താ പറയുന്നത് എന്താ നടക്കുന്നത് എന്ന് കുട്ടികൾ അറിയാൻ ബാധ്യസ്ഥരാവുന്നില്ല അതേപോലെതന്നെ ചിലർ ഈ ക്ലാസുകൾ ഓണാക്കി വെച്ചിട്ട് മറ്റു ചില പ്രവർത്തികളും ചെയ്യാറുണ്ട് ഈ ക്ലാസുകൾ എടുത്ത് വെച്ച് തന്നെ ഫോണിൽ സിനിമ കാണുക ഭക്ഷണം കഴിക്കുക പോയി കിടന്നുറങ്ങുക ടി വി കാണുക എന്നിങ്ങനെ പലതും ചിലപ്പോൾ ഇവർ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ പോയ സമയമായിരിക്കും എന്നാലും അവിടെ ഈ ക്ലാസ് ഓണാക്കി വെച്ച് ഇവർ അവിടെ കളിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ക്ലാസുകളിൽ എന്താ നടക്കുന്നത് എന്ന് പോലും കുട്ടികൾക്കറിയുന്നില്ല ഇത് ഈ സാങ്കേതികവിദ്യയുടെ ഒരു വലിയ ദോഷം തന്നെയാണ്